ദേ ഞങ്ങൾ ഹൈറേഞ്ചിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് കുറച്ചു സ്ഥലം ഞങ്ങൾക്ക് ഹൈറേഞ്ച് ഇടുക്കി പണിക്കങ്കുടി എന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെ ആണ് ഇത് നല്ല സ്ഥലം ഞങ്ങൾ നല്ല ഒരു സ്ഥലം നല്ല പ്ളേസ് കിട്ടണമായിരുന്നല്ലോ ഉണ്ടോ നമുക്ക് ഒരു വഴി സൗകര്യമൊക്കെ നോക്കി അഹ് ഹൈറെയിഞ്ച് നാട്ടിലേക്ക് മാറിയാണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ കൈവശം ഏത് രീതിലൊക്കെ ഉള്ളതുണ്ട് അതൊന്ന് പറഞ്ഞെ കോതമംഗലം ഭാഗം കോതമംഗലം ഭാഗമൊക്കെ നോക്കാം നമ്മൾക്ക് കോതമംഗലം ഭാഗമൊക്കെ ആവുമ്പോൾ എന്തോരം വരും കോതമംഗലം എഡ്ജിൽ പോകേണ്ട നെല്ലിക്കുഴി നെല്ലിമറ്റോ ആ ഭാഗത്തൊക്കെ നോക്കിയാൽ മതി അഹ് അഹ് യ അങ്ങോട്ട് എഡ്ജിൽ പോവേണ്ട എത്തി പോവേണ്ട അതിനിപ്പുറത്തേക്ക് മതി ആവുമല്ലേ കുറഞ്ഞ്

ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ കുറഞ്ഞ രീതിയിൽ നമുക്ക് വെള്ളവും അഹ് അതുമതി അത് കുഴപ്പമില്ല വണ്ടി പോകുന്ന വഴി മതി വീടും സ്ഥലവും ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും മതി വെള്ളവും വഴിയും വേണം മ്മ് പള്ളിയും പള്ളിക്കൂടമൊക്കെ അടുത്താണെങ്കിൽ പള്ളിയും പള്ളിക്കൂടമൊക്കെ അടുത്താണെങ്കിൽ അതും സൗകര്യം അതേ അല്ലേ അഹ് ഏതായാലും കുഴപ്പമില്ല എന്നാലും നമുക്ക് ഒരു ആവറേജ് നോക്കി നമ്മൾക്ക് പിടിക്കാം മ്മ് സാമാന്യം ഒരു നല്ല വീടും മ്മ് മ്മ് മ്മ്

കോതമംഗലം മാത്രമല്ല വേറെ നമ്മൾക്ക് അതിനോട് അടുത്ത പ്രദേശം എവിടെയാണേങ്കിലും നോക്കാം പെരുമ്പാവൂർ ഭാഗമോ മ്മ് നമ്മുക്കടെ വില കൊണ്ടും ഒത്തു വരണം സൗകര്യവും ഒത്ത് വരണം എൺപതോ അമ്പത് അമ്പത് അഹ് അങ്ങനെ നോക്കാം ഓ ഒന്ന് വിളിച്ചേരെ ഒന്ന് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ മ്മ് ഹൈറെയിഞ്ച് വിട്ടു പോകാം എന്ന് ഓർത്തത് കൊണ്ടാണ്

മ്മ് അങ്ങനെ ഒരു ഏകദേശം അടുത്ത് വരുമ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ കാണുമല്ലോ എന്നാൽ അങ്ങനെ നോക്കാം അഹ് ഒന്ന് അന്വേഷിച്ചു നോക്കിയിട്ട് എന്നാൽ എന്നെ ഒന്ന് വിളിക്കുമോ മ്മ് ശരി അങ്ങനെ ആയിക്കോട്ടെ മ്മ്